വെള്ളുവങ്ങാട് പാണ്ടിക്കാടിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങളൊരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു ഫാമിലി ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മുംബൈക്കാണ് അപ്പോൾ അതിന് എ സിയിൽ ടിക്കറ്റ് ഞങ്ങൾക്ക് വേണം അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ട്രെയിനിൻ്റെ സമയം എപ്പോഴാണ് രാവിലെ അത് രാവിലെ ഉള്ള ട്രെയിൻ ഉണ്ടാകുമോ അത് രാവിലെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് മൂന്ന് ഞങ്ങൾ ഒരു നാല് ദിവസത്തെ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ശനിയാഴ്ച്ച ഇറങ്ങുകയാണെങ്കിൽ അവിടെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ തിരികെ പോരും ബുധൻ അല്ലെങ്കിൽ വ്യാഴം തിരികെ പോരും ആ സമയത്തുള്ള ട്രെയിനുകൾ എപ്പോഴാണ് പോകുന്നത് അതൊക്കെ ഒന്ന് വിവരങ്ങളൊന്ന് ഞങ്ങൾക്ക് കൈമാറാൻ സാധിക്കുമോ അതുപോലെ തന്നെ അവിടെ പോകുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണമൊന്നും കയ്യിൽ കരുതുന്ന കരുതുന്നില്ല അപ്പോൾ അതിൻ്റെ അടുത്ത വല്ല ഹോട്ടലുകളോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരവും ഉണ്ടാകുമോ പിന്നെ അതുപോലെ തന്നെ ട്രെയിനിന് പോകുന്ന വഴികൾ ഞങ്ങൾക്ക് അത്ര വശമില്ല കൂടുതൽ അറിയാൻ അറിയുന്ന ആരെങ്കിലും നമ്പറോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹായം ആരെങ്കിലും നമ്പറോ അല്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞ് നൽകാമോ ഞങ്ങൾക്ക് വളരെ ഉപയോഗം ഉപയോഗപ്പെടുമായിരുന്നു ട്രെയിനനെ എപ്പോഴാണെന്ന് പറയാൻ സാധിക്കുമോ ഓക്കെ ഓ എന്നാൽ സമയത്ത് ഇറങ്ങിയേക്കാം ശരി ഓക്കെ താങ്ക് യൂ